ഞാൻ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളെന്ന് പറഞ്ഞാൽ ചിരട്ട കൊണ്ട് പല ആകൃതിയിൽ പൂവുകൾ ഉണ്ടാക്കുക കപ്പ് ഉണ്ടാക്കുക പിന്നെ കൈല് ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് ഷോക്കേസിൽ വയ്ക്കുമ്പോൾ നല്ല രസമുണ്ടാകും പിന്നെ ബോട്ടിൽ ആർട്ട് അത് വെള്ള കുപ്പിയിൽ ഡിസൈനൊക്കെ ചെയ്ത് ങ്ങാണ്ടയില് മീനൊക്കെ വെള്ളം വച്ച് ങ്ങടൈല് മീനൊക്കെ ഇട്ട് ങ്ങണ്ട് ജനാലമ്മേലൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ചെടിച്ചട്ടി സിമൻ്റിൽ സിമൻ്റ് കലക്കിയിട്ട് ചാക്ക് മുക്കിയിട്ട് ഓരോരോ ആകൃതിയിൽ ചട്ടി ഉണ്ടാക്കാം ചെടി വച്ചിടാൻ നല്ല രസമാണ് പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഈ കുപ്പി മിഠായിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ മേലെ ഒക്കെ ഓരോരോ ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ചെടിച്ചട്ടി ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഒക്കെ ഉണ്ടാക്കൽ പിന്നെ സ്റ്റിച്ചിംഗ് ഇങ്ങനെ മിഷീന് അടിച്ച് കൊണ്ട് അങ്ങനെ ഓരോരോ ഇത് ഉണ്ടാക്കും മോഡലായിട്ട് അങ്ങനെ ഓരോരോ ഇതുണ്ടാക്കും പിന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്തുകൊണ്ട് ഈ ക്യാൻവാസിൻ്റെ മേലെ ഒക്കെ വരച്ചിട്ട് അതൊക്കെ ഫ്രെയിം ചെയ്തു കൊണ്ട് സ്റ്റെപ്പിൻ്റെ മേലെ അങ്ങനെ ഒക്കെ വയ്ക്കുമ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ സ്റ്റെപ്പിൻ്റെ മേലെയൊക്കെ ഇത് സ്റ്റെപ്പിൻ്റെ അടുത്ത് ചുമരിൻ്റെ മേലെയൊക്കെ തൂക്കാം പിന്നെ വെജിറ്റബിൾ പ്രിൻറ്റിങ് അങ്ങനെ നൂലു കൊണ്ട് ഇങ്ങനെ ഓരോരോ ഡിസൈനൊക്കെ പൂവൊക്കെ തുന്നി ഉണ്ടാക്കി കൊണ്ട് അതൊക്കെ ഫ്രെയിം ചെയ്ത് വച്ചാൽ നല്ല രസമുണ്ടാവും പിന്നെ വെജിറ്റബിൾ പ്രിൻറ്റിങ് പറഞ്ഞാൽ നമ്മൾ വെള്ള തുണിയിൽ ഓരോരോ വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് പെയിൻ്റിൽ മുക്കിയിട്ട് അത് തുണിയിൽ പൂവാക്കി കൊണ്ട് ഇങ്ങനെ വച്ച് കൊടുക്കുക പൂവിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ വച്ച് കൊടുക്കുക എന്നിട്ട് അത് കട്ട് ചെതെടുത്ത് കൊണ്ട് അപ്പം ഒരു പൂവ് നല്ല രസമുണ്ടാവും വെള്ള ഡ്രെസ്സിൽ ചെയ്യുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയാണ്